നമ്മള് ഈ ഓൺലൈനിൽ നിന്ന് പ്രോഡക്ട് വാങ്ങുമ്പോഴേ സത്യം പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ് ചിലപ്പോൾ നല്ലത് കിട്ടും ചിലപ്പോൾ ചീത്ത കിട്ടും പണ്ടൊരിക്കൽ ആമസോണിൽ നിന്ന് ഞാൻ ഒരു ഫോൺ ഓർഡറ് ചെയ്തിരുന്നു ഫോൺ ഭയങ്കര റിവ്യു ഒക്കെ കേട്ട് എല്ലാവരും അടിപൊളി ഫോണാണ് എന്ന് പറഞ്ഞ് ഓർഡർ ചെയ്തതാണ് പക്ഷേ ഇതിന് മുമ്പ് വാങ്ങിച്ച ഫോണിനും ഭയങ്കര മോശം അഭിപ്രായമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് അപ്പോഴേ ഞാൻ ഉറപ്പിച്ചതാണ് ഓൺലൈനിൽ വാങ്ങില്ല എന്ന് പക്ഷേ വീണ്ടും ഓൺലൈനില് വാങ്ങാൻ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം എനിക്ക് വേണ്ടിവന്നു അങ്ങനെ ഞാൻ എൻ്റെ പുതിയ ഫോൺ ഓർഡറ് ചെയ്തു പക്ഷേ ഇത്തവണ അതായിരുന്നില്ല അനുഭവം ഞാൻ വാങ്ങിയ ഫോൺ അടിപൊളിയായിരുന്നു ഫോണിൻ്റെ ക്യാമറ ആയാലും ശെരി സൗണ്ട് ആയാലും ശെരി ഡിസ്പ്ലേ ആയാലും എല്ലാം നല്ല പക്ക ആയിരുന്നു പിന്നെ പാക്കിങ്ങും അതുമാത്രമല്ല അവരുടെ ഡെലിവെറിയും ഓൺടൈം ആയിരുന്നു ഒരു യാത്ര പോകുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഞാൻ ഫോൺ ഓർഡറ് ചെയ്തത് അതുകൊണ്ട് പെട്ടെന്ന് കിട്ടുവോ എന്നായിരുന്നു എൻ്റെ പേടി പക്ഷേ അത് പെട്ടെന്ന് കിട്ടി എന്ന് മാത്രമല്ല ഞാൻ പ്രതീക്ഷിച്ചതിലും അടിപൊളി ആയിരുന്നു പിന്നെ ഞാൻ കടയിൽ പോയി നോക്കിയിരുന്നതിനെക്കാളും ഒരുപാട് കളർ കളക്ഷൻസും സെലെക്ഷനും എല്ലാം എനിക്ക് ഓൺലൈനില് കിട്ടി പിന്നെ ഫോണിൻ്റെ കൂടെ കിട്ടിയ ചാർജറും അടിപൊളിയായിരുന്നു അതുകൊണ്ട് മൊത്തത്തില് എനിക്കാ ഫോൺ നല്ല ഇഷ്ടപ്പെട്ടു ഇനിയും ഓൺലൈനില് ഓർഡറ് ചെയ്യാനുള്ള ഒര് പേടി മാറിക്കിട്ടി